കോഴിവളർത്തലുമായി ബന്ധപ്പെട്ട് പൊതുവായി നിയന്ത്രണങ്ങളും നിയമങ്ങളും ധാരാളം തന്നെയുണ്ട് അവ കർഷകരെ നല്ലതായും മോശമായും ബാധിക്കുന്നുണ്ട് അതായത് കോഴിവളർത്തലുമായി ബന്ധപ്പെട്ട് പല സംഘടനകളിലും കർഷകർക്ക് ആവശ്യമായ സഹായം എത്തിച്ചുകൊടുക്കാറുണ്ട് അവയ്ക്ക് കോഴിവളർത്തലുമായിട്ട് ബന്ധപ്പെട്ട് ആവശ്യമായ ക്ലാസ്സുകൾ സജ്ജീകരിച്ച് കൊടുക്കാറുണ്ട് അവയുടെ പരിപാലനത്തെക്കുറിച്ച് വ്യക്തമായൊരു ബോധം കർഷകരിൽ ഉണ്ടാക്കുന്ന രീതിയിൽ നല്ല നല്ല ക്ലാസ്സുകൾ പല സംഘടനകളും അവർക്ക് സംഘടിപ്പിച്ച് കൊടുക്കാറുണ്ട് അതുവായിട്ട് തന്നെ അവർക്കാവശ്യമായ കോഴിവളർത്തലും ആവശ്യപ്പെട്ട സാമ്പത്തികം സാമ്പത്തികമായിട്ട് വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ ലോണുകളും അനുവദിച്ച് കൊടുക്കാറുണ്ട് അങ്ങനെയെല്ലാം കർഷകരെ വളരെയധികം നല്ലതായിട്ട് തന്നെ പ്രോത്സാഹിപ്പിക്കാൻ പഴ പല സംഘടനകളും മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു

പക്ഷേ ഈ കോഴിവളർത്തലുമായി ബന്ധപ്പെട്ട് ഇന്ന് വളരെയധികം അവയുടെ ആ ഒരു വരുമാന മാർഗത്തെ വളരെയധികം ദോഷകരമായി ബാധിക്കുന്ന ഒന്നായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് പക്ഷിപ്പനി കാരണം പക്ഷിപ്പനിയുടെ എവിടെയെങ്കിലും ഏതെങ്കിലുമൊരു സ്ഥലത്ത് പക്ഷിപ്പനി എന്നൊന്ന് കെട്ടുകഴിഞ്ഞാൽ പാവപ്പെട്ട എല്ലാ കർഷകരുടെയും കോഴികളെയും ഒരുമിച്ച് കൊന്നുകളയുന്ന രീതിയാണ് ഇപ്പം നമ്മുടെ സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്നത് കാരണം ഒരു കോഴി ഒരു പലരും ചിലപ്പം മുട്ട മുട്ട വിരിഞ്ഞ അടയിരുത്തി കോഴിക്കുഞ്ഞായി അതിനെ അവരുടെ സ്വന്തം മക്കളെന്നതുപോലെ രീതിയിലും പരിപാലിച്ച് വരുന്ന ഒത്തിരി കർഷകർ ഉണ്ട് നമുക്ക് ചുറ്റും അവർക്കൊക്കെ അതിനെ ഒന്നുകൂടെ അവരുടെ മുന്നിൽ വെച്ച് കൊന്നുകളയുമ്പോൾ ഉണ്ടാകുന്ന മാനസിക വിഷമം അവർക്ക് ഉണ്ടാകുന്ന സാമ്പത്തിക വിഷമത്തേക്കാൾ വളരെ വലുതാണ് ഇപ്പം ഈയിടെ ആയിട്ട് വളരെയധികം സംഭവങ്ങളാണ് ഉണ്ടാവുന്നത് വളരെയധികം ഈ ഒരു കോഴിയിൽ നിന്ന് മുട്ട വിറ്റ് ആദായമുണ്ടാക്കി വ കഴിയുന്ന ഒത്തിരി കുടുമ്പങ്ങളുണ്ട് നമുക്ക് ചുറ്റും ഏതോ ഒരു ജില്ലയിൽ പക്ഷിപ്പനി എന്ന് കേൾക്കുമ്പോൾ തന്നെ അധികാരികൾ ഈ ഒരു കാര്യത്തിൽ കൂട്ടായി നിന്നുകൊണ്ടുതന്നെ എല്ലാ വീടുകളിലേയും കോഴികളെ മൊത്തത്തോടെ കൊന്നുകളയുന്ന ഒരു പ്രവണത ചിലപ്പോൾ ഒരിക്കലും അത് മൃഗസംരക്ഷണ നിയമവും ആയിട്ടും പക്ഷി സംരക്ഷണ നിയമവും ആയിട്ടും അവരുടെ പ്രോട്ടോക്കോൾ അനുസരിച്ചായിരിക്കാം പക്ഷേ ഒരി കർഷകനെ സംബന്ധിച്ചിടത്തോളം അതെന്നുപറയുന്നത് വളരെയധികം വേദനാജനകമായ കാര്യങ്ങളാണ് കാരണം അത്രയും നാളും അവരുടെ ആ ഒരു സമ്പാദ്യമെന്ന് പറയുന്നത് ആ ഒരു കോഴിവളർത്തൽ ആയിരിക്കാം അതിലൂടെ നഷ്ടമാകുന്ന മനോവിഷമം ഒരു സ്ഥലത്ത് അതോടൊപ്പം തന്നെ സാമ്പത്തികമായ അവരുടെ അടിത്തറ തന്നെ ഇല്ലാതാവുകയാണ് ഈ ഒരു കോഴിക്ക് സാമ്പത്തികമായിട്ട് അവർ നഷ്ടപരിഹാരം കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കോഴികളെയെല്ലാം കൊന്നുകളയുന്നത് എന്നാൽ പലപ്പോഴും നഷ്ടപരിഹാരങ്ങൾ കിട്ടിയാലായി അതും കിട്ടിയാൽ തന്നെ വളരെ തുച്ഛമായ രൂപയാണ് ഇവർക്ക് ലഭിക്കുന്നത് ഇതെന്ന് പറയുന്നത് കോഴി വളർത്തലിനെ വളർത്തലുമായിട്ട് മുന്നോട്ട് വരുന്ന കർഷകരെ പുറകോട്ട് വലിക്കുന്നതിന് തുല്യമാണ് ഇപ്പം ഈ കോഴിവളർത്തലുമായി ബന്ധപ്പെട്ട് പൊതുവായ നിയന്ത്രണങ്ങൾ നിയമങ്ങൾ ഒക്കെ കർഷകരെ ഇപ്പോൾ ശരിക്കും മോശമായിട്ടാണ് ബാധിക്കുന്നത് കാരണം ഇതിൽ എന്തെങ്കിലും നിയമങ്ങൾക്ക് ഭേദഗതി വരുത്തേണ്ടത് അത്യാവശ്യമാണ് ഇങ്ങനെയൊരു പക്ഷിപ്പനി ഉണ്ടാവുമ്പോൾ നമുക്കറിയാൻ സാധിക്കും എല്ലാ ജനങ്ങളുടെയും നന്മയ്ക്ക് വേണ്ടിയാണ് ഇതിനെ നമ്മൾ കൂട്ടത്തോടെ നിർമ്മാർജനം ചെയ്യുന്നത് പക്ഷേ ആ കർഷകർക്ക് ഉണ്ടാകുന്നൊരു വലിയ ബാധ്യതയെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അവയെ കൊന്നുകളയുമ്പോൾ തന്നെ ഒരാഴ്ച്ചയ്ക്ക് അല്ലെങ്കിൽ ഒരു മാസത്തിനകമെങ്കിലും അവർക്ക് അതിനുണ്ടായ നഷ്ടപരിഹാരം നമ്മൾ തിരിച്ച് അധികാരികൾ കൊടുക്കാനായിട്ട് അതിനുള്ള നിയമങ്ങൾ വളരെയധികം അത്യാവശ്യമാണ് ഈ ഒരു കർഷകരെക്കുറിച്ച് സംസാരിക്കാനായിട്ട് നിലവിൽ യൂട്യൂബ് ചാനലുകളൊ മാധ്യമങ്ങളോ ഒക്കെ അവയുടെ എണ്ണങ്ങൾ വളരെ കുറവാണ് കാരണം ഒരു കൃഷി അല്ലെങ്കിൽ കർഷകൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് പലപ്പോഴും സമൂഹത്തിന്റെ പുറകെ പോവുകയാണ് ഒരിക്കലും